ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഞാൻ ഏറ്റവും ഇഷ്ടപെടുന്നൊരു രാജ്യമാണ് ഇന്ത്യ ഞാൻ ജനിച്ചതും ജനിച്ച് വളർന്നതും ഇപ്പോൾ താമസിച്ച് കൊണ്ട് ഇരിക്കുന്നതും എനിക്ക് പൗരത്വമുള്ളതുമായ രാജ്യം ഇന്ത്യയാണ് ഒരുപാട് ചരിത്ര സംബന്ധമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഒരുപാട് സംസ്ഥാനങ്ങളായിട്ടും ഒരുപാട് കേന്ദ്രങ്ങളായിട്ടും ഒരുപാട് നാടുകളായിട്ടും ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒറ്റവാക്കിൽ പറയാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ഞനൊരു കവിത പറഞ്ഞ് തുടങ്ങാം ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു തരി മണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ സ്വർഗ്ഗ പ്രഭയല്ലോ എന്നാണ് പണ്ട് ഒരു മലയാളം കവി പാടിയ ഒരു കവിതയാണിത് ഒരുപാട് അർത്ഥ തലങ്ങൾ ഇതിലുണ്ട് ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരുതരി മണ്ണല്ല എന്ന് പറഞ്ഞാൽ ഭാരതമെന്നാൽ ഇന്ത്യയെന്നാൽ ഭൂമിയുടെ നടുവിൽ കേവലമൊരു തരി മണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ സ്വർഗ്ഗ പ്രഭയാല്ലോ ജനകോടികൾ നമ്മെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നാമായി മാറ്റിയ സ്വർഗ്ഗ പ്രഭയല്ലോ എല്ലാവരും കൂടി ഒത്ത് ചേർന്ന് സ്വാതന്ത്ര്യ സമരം ചെയ്ത് നേടിയെടുത്ത ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒരുപാട് കഷ്ടതകൾ വേദനകൾ സഹിച്ച് കൊണ്ട് നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഒരുപാട് അർഥ തലങ്ങൾ ഈ കവിതയിലുണ്ട് എല്ലാം എനിക്ക് ഒറ്റ വാക്കിൽ പറയാനൊന്നും പറ്റില്ല ഒരുപാട് വിശദീകരിക്കാനുണ്ട് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടപെട്ട വ്യക്തി എന്ന് പറയുന്നത് മഹാത്മാ ഗാന്ധിജിയാണ് മഹാത്മാ ഗാന്ധിജിയാണ് ഇന്ത്യൻ ജനങ്ങളോട് ഉണരൂ ഇനി ബ്രിട്ടീഷ്കാരുടെ അടിയും തൊഴിയും ബുദ്ധിമുട്ടുകളുമൊക്കെ സഹിച്ചു കൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് നമ്മൾ ജനിച്ച മണ്ണാണിത് നമ്മൾ ജനിച്ച് നമ്മുടെ അച്ഛൻ മുതുമുത്തച്ഛൻമാർ ഉപ്പ ഉപ്പുപ്പന്മാരൊക്കെ ജനിച്ച് വളർന്ന് മരിച്ച മണ്ണാണിത് ഇവിടേക്ക് മറ്റൊരു രാജ്യത്ത് നിന്ന് അതായത് ബ്രിട്ടീഷിൽ നിന്ന് അവരിങ്ങോട്ട് വന്ന് ഭരണം നടത്തി എന്തിനാണ് നമ്മളെ അടിമകളാക്കി വെക്കുന്നത് കാരണം നമ്മളിവിടെ ജനിച്ച് വളർന്നവരല്ലേ ഇത് നമുക്ക് നമുക്ക് മാത്രം അവകാശപ്പെട്ട മണ്ണാണ് ഇവിടെ നമ്മൾ ഒരു വേദനകളും കഷ്ടതകളും അനുഭവിക്കേണ്ടതില്ല നമ്മൾ സമരം ചെയ്ത് നമ്മളെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കണം എന്ന് ഇന്ത്യയുടെ ഇന്ത്യയിലെ ഓരോ ജനങ്ങളോടും പ്രഖ്യാപിച്ചത് ഉറക്കെ പ്രഖ്യാപിച്ചത് മഹാത്മാ ഗാന്ധിജിയാണ് മഹാത്മാ ഗാന്ധിജിയാണ് മഹാത്മാ ഗാന്ധിജിയിൽ നിന്ന് നമുക്കൊരുപാട് പഠിക്കാൻ പഠിക്കാനൊരുപാട് പാഠങ്ങളുണ്ട് സുഹൃത്തുക്കളെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഗാന്ധിജിയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട് മഹാത്മാ ഗാന്ധിജി റിയൽ ലൈഫിൽ ഒരു വക്കീൽ ആയിരുന്നു ഒരു അഭിഭാഷകനായിരുന്നു ഒരുപാട് കേസുകൾ വിജയിപ്പിച്ച പരാജയപ്പെടുമെന്ന് ഉറച്ച കേസുകൾ പോലും വിജയിപ്പിച്ച ഒരു മഹാ പ്രതിഭയായിരുന്നു മഹാത്മാ ഗാന്ധിജി മഹാത്മാ ഗാന്ധിജി ഒരിക്കലും തെറ്റായിട്ടുള്ള കേസ് എടുത്ത് വാദിക്കാറില്ല തനിക്ക് ശരിയാണെന്ന് തോന്നുന്നത് തോന്നുന്നതിൽ മാത്രം തനിക്ക് ശരിയെന്ന് ഉറപ്പ് ഉറച്ച് വിശ്വസിക്കുന്നതിൽ മാത്രം അന്ന് അങ്ങനെയുള്ള കേസുകൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഒരാളാണ് മഹാത്മാ ഗാന്ധിജി അതിന് ശേഷം മഹാത്മാ ഗാന്ധിജിയുടെ കൂടെ എല്ലാ ജനങ്ങളും ഇന്ത്യയുടെ ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ അണി നിരന്നു ഓരോ സ്ഥലങ്ങളിലായി സ്വാതന്ത്ര്യസമരങ്ങൾ ഉയർന്നു ഓരോ നാടുകളിൽ നിന്നും ഓരോരോ നേതാക്കന്മാർ സ്വാതന്ത്ര്യ സമര നേതാക്കൻമാർ ഉയർന്നു വന്നു അങ്ങനെ അവർ മുഖേന ഓരോരോ നാട്ടിൽ നിന്ന് സ്വാതന്ത്ര്യസമര മുറകളും പോർവിളികളുമൊക്കെ ഉയരാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും സജ്ജമായി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാവരും തയ്യാറായി എല്ലാവരും തയ്യാറായാണ് അവസ്ഥയായിരുന്നു അത് മഹാത്മാ ഗാന്ധിജിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഇന്ത്യക്ക് സ്വന്തന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഗാന്ധിജിയോടാണ് എല്ലാവരും പറഞ്ഞത് നിങ്ങൾ പ്രധാനമന്ത്രിയാകണം പക്ഷെ ഗാന്ധിജിക്ക് ഒരു ഒരു സ്ഥാനോ സ്ഥാനമാനങ്ങളുമൊന്നും ഇഷ്ടമില്ലായിരുന്നു സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിക്കാത്ത ആളായത് കൊണ്ട് സന്തോഷകരമായി അതും നിരസിച്ച് കൊണ്ട് ജവഹർലാൽ നെഹ്റുവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ചാച്ചാജി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണെങ്കിലും നേതാജി എന്നറിയപ്പെടുന്നത് നമ്മുടെ മഹാത്മാ ഗാന്ധിയാണ് നേതാജി എന്നറിയപ്പെടുന്നത്

വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അത് നടന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതായത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പിന്നെ ഒന്ന് വാഗൻ ട്രാജഡി ഒരുപാട് വിഷമകരമായിട്ടുള്ള ചരിത്രമാണ് അത് വേദനിച്ച് കൊണ്ടല്ലാതെ മനസ്സ് വേദനിച്ച് കൊണ്ടല്ലാതെ ആ ഒരു എന്താണ് പറയുക ആ ഒരു സംഭവത്തെ വായിക്കാനോ ചരിത്ര പുസ്തകത്തിൽ നിന്ന് വായിക്കാനോ പ്രാസംഗികർക്ക് പറയുന്നവർക്ക് പറയാനോ സാധിക്കില്ല അത്രക്കും വേദനാജനകമായിട്ടുള്ള സംഭവങ്ങളാണ് അതൊരു കൂട്ടക്കൊലയാണ് വാഗൺ ട്രാജഡിയും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും അത് രണ്ട് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട കൂട്ടക്കൊലയാണ് ബ്രിട്ടീഷ് ഗവണ്മെൻറ്റ് ബ്രിട്ടീഷ് പട്ടാളക്കാർ ഒരു ദയവും ദാക്ഷിണ്യവുമില്ലാതെ സ്വാതന്ത്ര്യ സമരക്കാർക്ക് നേരെ നീട്ടിയ കടുത്ത കയ്യായിരുന്നു കടും കയ്യായിരുന്നു അത് അതൊരിക്കലും അംഗീകരിക്കേണ്ട കാര്യം നമുക്കില്ല അതിനെതിരെ നമ്മൾ ഒരുപാട് സമരങ്ങൾ അന്നും ചെയ്തതതാണ് ഇപ്പോഴും അതിൻ്റെ ഒരു എന്താണ് പറയുക ആ ചരിത്രത്തിൻ്റെ പ്രത്യാഘാതം ഒരു അതിനോടുള്ള ഒരു ശത്രുത ഓരോരോ മനസ്സ് ഓരോരോ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഉണ്ട് ഗാന്ധിജി അഹിംസയുടെ ആളായിരുന്നു അഹിംസ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ ഇഷ്ടമുള്ള ആളായിരുന്നില്ല എന്നതാണ് സാരം മറ്റുള്ളവരെ ദ്രോഹിക്കണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കണം ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ട് അടിക്കരുത് സമാധാനത്തോടു കൂടി സംസാരിക്കുക എന്ന ഒരു മെൻറ്റാലിറ്റി എന്നൊരു അങ്ങനെയുള്ളൊരു മനോഭാവം ഉള്ള ആളായിരുന്നു ഗാന്ധിജി പക്ഷേ മറ്റൊരു നേതാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗത് സിംഗ് അയാൾ അഹിംസയുടെ എതിരെ പ്രവർത്തിച്ച ആളായിരുന്നു അയാൾ അയാൾ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സമരത്തിൽ ഒരുപാട് പോരാടിയ ആളായിരുന്നു ഭഗത് സിംഗ് പക്ഷേ അദ്ദേഹം അഹിംസയുടെ ആളായിരുന്നില്ല ഹിംസയുടെ ആളായിരുന്നു ഇങ്ങോട്ട് രണ്ടടിച്ചാൽ അങ്ങോട്ട് പത്തടി അടിക്കണം എന്നുള്ള ഒരു മനോഭാവമുള്ള ആളായിരുന്നു അദ്ദേഹം പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരക്കാർക്ക് സമരക്കാർക്ക് നേരെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എനിക്ക് ആ ചരിത്രം ശരിയായ രീതിയിൽ ഓർമ്മയില്ല പക്ഷേ ഇത് ഭഗത് സിങ് അറിഞ്ഞപ്പോൾ ബ്രിട്ടീഷ്കാരുടെ പോലീസ് സ്റ്റേഷൻ പോയി പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയാണ് ചെയ്തത് ആ കത്തിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പോലീസ്കാർ മരണപ്പെടുക ചെയ്തിരുന്നു ഇത് ഗാന്ധിജിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം അവിടെ മനുഷ്യർ കൊല്ലപ്പെട്ടു മനുഷ്യരാകുന്ന ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ടു അവരിങ്ങോട്ട് ദ്രോഹിച്ചാലങ്ങോട്ട് ദ്രോഹിക്കരുത് എന്ന മനസ്സ് മനസ്സിൻ്റെ മെൻറ്റാലിറ്റി ഗാന്ധിജിക്കുള്ളത് കൊണ്ടാണ് ഗാന്ധിജി അതിഷ്ടപ്പെടാത്തത് ഗാന്ധിജി അതിനെ അപലപിക്കുകയാണ് ചെയ്തത് ആ പോലീസ് സ്റ്റേഷൻ കത്തിച്ചത് കൊണ്ട് ഭഗത് സിംഗിനെ പിൽക്കാലത്ത് തൂക്കിലേറ്റി കൊല്ലുക ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഇന്ത്യൻ ഇന്ത്യയുടെ ചരിത്രമറിയുന്ന ഇന്ത്യയുടെ ചരിത്രത്തെ ഇഷ്ടപെടുന്ന ഹിസ്റ്ററിയെ ഇഷ്ടപെടുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കൊരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത മറക്കാൻ പാടില്ലാത്ത പേരുകളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പേരാണ് ഭഗത് സിംഗ് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ പാടില്ല ഇന്ത്യയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായ അതായത് കഴുമരത്തിൽ കയറി മരിക്കേണ്ടി വന്ന ബ്രിട്ടീഷുകാരാൽ മരിക്കേണ്ടി വന്ന ഒരു വ്യക്തിയായിരുന്നു ഭഗത് സിങ് അതുപോലെ തന്നെ കേരളത്തിലും നമ്മുടെ കേരളത്തിലും സ്വാന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ലഹളയാണ് ഒരു സമരമാണ് മാപ്പിള ലഹള കേരളത്തിലെ മലബാർ ഭാഗത്ത് ഭാഗത്തുള്ള അതായത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി ബ്രിട്ടീഷ്കാർക്കെതിരെ നടത്തിയ ഒരു സമരമായിരുന്നു മലബാർ കലാപം അതായത് മാപ്പിള ലഹള അതിന് നേതൃത്വം നൽകിയത് വാരിയം കുന്നത് കുഞ്ഞഹമ്മദ് ഹാജിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ ബ്രിട്ടീഷുകാർ കൊല്ലുകയാണ് ചെയ്തത് അദ്ദേഹത്തേയും ഇന്ത്യൻ ജനങ്ങൾ ഒരിക്കലും മറക്കരുത് കാരണം അദ്ദേഹം വലിയ വിലപ്പെട്ട കാര്യങ്ങളാണ് ചെയ്തത്